ഈ നമ്മുടെ കേരളത്തിൽ പൊതുവെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ രാഷ്ട്രീയ പാർട്ടികളുണ്ട് ഇപ്പോൾ നമ്മുടെ ഇവിടെ ഭരിക്കുന്നതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കേരളം ഭരിക്കുന്നതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ സി പി ഐ എമ്മാണ് കാരണമെന്ന് വെച്ചു കഴിഞ്ഞാൽ മാർക്സിസ്റ്റ് പാർട്ടിയാണ് ഇപ്പോൾ കേരളം ഭരിക്കുന്നത് ഇപ്പോൾ ഒരു പത്ത് ഒമ്പത് വർഷത്തോളായിട്ട് സി പി എം തന്നെയാണ് ഭരിക്കുന്നത് തുടർച്ചയായിട്ടുള്ളൊരു ഭരണമാണ് ആദ്യം അവർ നല്ല രീതിയിലൊക്കെ നല്ല ഒരു ഭരണവും കാര്യങ്ങളൊക്കെ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോഴത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരേ മോശമായിട്ടുള്ളൊരു ഭരണമായിരുന്നു ഞാനൊരു മാർകിസ്റ്റ് പാർട്ടി ആണ് പക്ഷെ എനിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഭരണമൊന്നും ഇപ്പോൾ വലിയ കാര്യത്തിൽ ഇഷ്ടപ്പെടുന്നില്ല കാരണം അവരുടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒരു ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആയിട്ടാണ് കൂടുതലായിട്ട് ഇപ്പോഴത്തെ ആൾക്കാർ ഭരിക്കുന്നത് അപ്പോൾ നമ്മൾ മന്ത്രിമാരെ പറഞ്ഞിട്ടും കാര്യമില്ല മന്ത്രിമാർ എങ്ങനെയാണോ അതേപോലെയാണ് നമ്മുടെ എന്താ പറയുക ഇപ്പോൾ ഓരോ ആൾക്കാരുണ്ട് ഇപ്പോൾ ഇവിടെതന്നെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ഈ മാർകിസ്റ്റ് പാർട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള നേതാക്കന്മാരൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അതായത് നമ്മുടെ അതായത് കുറേ ആൾക്കാരുണ്ട് നമ്മുടെ നയനാർ നയനാരൊക്കെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ഇഷ്ടമായിരുന്നു കാരണം നമ്മളെ കേരളം തന്നെ അടിപൊളിയായിട്ട് ഭരിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് നയനാരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രൂപീകരിച്ചത് ഒരു എന്താ പറയുക ഇപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ ഒരു മുഖ്യമന്ത്രിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരാൾ എന്താ പറയുക ഒരു ആളായിരുന്നു നമ്മുടെ മുഖ്യമന്ത്രിയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പുള്ളി നല്ല അടിപൊളിയായിട്ട് ഭരിച്ചുകൊണ്ടിരുന്നതാണ് ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ നല്ല ഇപ്പോൾ വളരേ മോശമായിട്ടാണ് ഭരിക്കുന്നത്